അ ഞാനേ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഇവിടെ വാര്യാഡ് നിന്നാണ് വിളിക്കുന്നത് എനിക്ക് പിടിയും കോഴിയും ഇപ്പം പിടിയും കോഴിയും ഈ ഒര് ടൈമില് കിട്ടുവോ ഒരു വൺ അവറിനുള്ളില്

ഇല്ലില്ല വീട്ടിലോട്ട് ഡെലിവർ ചെയ്താൽ മതി ഒരാറ് പേർക്കുള്ള പിടിയും കോഴിയും കോഴി വറുത്തരച്ച കോഴിക്കറി മതി അ കുറച്ച് ഗ്രേവി കുറച്ച് കൂടുതൽ ഇതാക്കി പിന്നെ അവിടെ എന്താ കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഓക്കേ ഒരു ആറ് ആറ് മോജിറ്റോ അ പിന്നെ രാത്രിയിലത്തേക്ക് നൈറ്റ് ഇതു ഇതിൻ്റെ കൂടെത്തന്നെ നിങ്ങളൊരൂ ഒരു ഫുൾ മന്തി കിട്ടുമോ മന്തി ബീഫ് മന്തി മതി ഫുൾ ബീഫ് മന്തി അപ്പോൾ എമൗണ്ട് എങ്ങനെയാ ഗൂഗിൾ പേ ആണോ ക്യാഷ് ഓൺ ഡെലിവറി എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കേ എത്ര സമയത്തിനുള്ളില് നിങ്ങൾക്ക് വാര്യട് വരെ എത്തിക്കാൻ പറ്റും അ ഇന്ന് വൈകുന്നേരം ഓ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് വേണോ പ്രിപറേഷൻ ചെയ്ത് കൊണ്ട് തരേണ്ട ടൈം വേണോ ഐ സീ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും എനിക്ക് കിട്ടണം

ഓക്കേ ഇത് മൂന്നും അപ്പോൾ ഞാൻ അ ഈ സ്വീറ്റ്സ് എന്താണുള്ളത് ഈ ഡെസ്സേർട്ട് പോലത്തെ എന്തെങ്കിലും ഐറ്റംസ് സ്വീറ്റ്സ് എന്താ വേറെ എങ്ങനെയാണ് അ അല്ല അല്ലാതെ വേറെ ഒന്നുമില്ല സ്വീറ്റ്സ് ആയിട്ടുള്ളത് ഓ ഓക്കേ എന്നാൽ ഇത് മാത്രം മതി നിങ്ങള് ഏഴ് മണിക്കുള്ളില് എത്തിക്കാൻ ശ്രമിക്കൂ കേട്ടോ ഓക്കേ താങ്ക്യൂ